ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യപരിപാലനത്തിൽ കൂടുതൽ കാര്യക്ഷമത ഉണ്ടാക്കുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാവർക്കും എന്താപറയുക പൈസ ഇല്ലാത്തവർക്കും പൈസയുള്ളവർക്കും എല്ലാവർക്കും ഒരു ഈക്വൽ പരിഗണന കൊടുക്കണം ഇപ്പം എന്തപറയുക ഒരു നാ പൈസ ഇല്ലാത്തവർക്ക് ആ അവരുടെ അതൊരു കൺസൾട്ടൻറ്റ് അപ്പം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇപ്പോൾ പ്രൈവറ്റ് പ്രൈവറ്റ് പോലെ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് ആശുപത്രികളിലും അങ്ങനെ മാറേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രിയിൽ നമ്മൾ എന്താ പറയുക ഇപ്പം കിടക്കേണ്ട ഒക്കെ അവസ്ഥ വരികയാണെങ്കിൽ ഇപ്പോൾ അഡ്മിറ്റാകുന്ന അവർക്ക് എന്താ പറയുക റൂം റൂമിലല്ലാണ്ട് പേ വാർഡ് അല്ലാണ്ട് അല്ലാത്ത വാർഡുകളിലും അവർക്കതുപോലെ തന്നെ റൂ എന്താ പറയുക കിടക്കാനുള്ള കട്ടിലും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക അതുപോലെ തന്നെ മരുന്നുകളുടെ അഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇപ്പം എന്ത് മരുന്നാണെങ്കിലും അതവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാനുള്ള ഒരിതുണ്ടാകണം പിന്നെ ഇപ്പം നമ്മുടെ ഐ സി സി വാർഡ് അതേപോലത്തെ ഓരോ വാർഡുകളിൽ അതുപോലെ തന്നെ കെയർ കൊടുക്കാൻ പറ്റണം അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക അതുപോലെ നഴ്സുമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ എല്ലാവരും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക അപ്പം എന്താ പറയുക നമ്മുടെ ആരോഗ്യ പരിപാലനം കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് മുൻപോട്ട് പോകും അതുപോലെ തന്നെ സർക്കാരും ഇതിനൊത്ത് എന്താ പറയുക മരുന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം നന്നായിട്ട് കൊണ്ടു പോകാൻ പറ്റും